സ്കൂളിലും കോളേജിലുമായിട്ടു കുറേ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും ഗണിത ശാസ്ത്രജ്ഞന്മാരെകുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ചു പേരാണ് ഒന്നമത്തേത് ഏ പി ജെ അബ്ദുൾക്കലാം പിന്നെ സീ വീ രാമൻ വിക്രം സരാഭായി ഹോമി ജഹാങ്കിർ ബാബാ ഇവർക്കു കുറച്ചു പ്രധാനപ്പെട്ടവരാണ് പ്രശസ്തരുമാണ് അതിലാദ്യം എടുത്തു പറയേണ്ടത് ഏ പി ജെ അബ്ദുൾക്കലാമാണ് അദ്ദേഹത്തെ അറിയാത്തതായിട്ട് ആരുമില്ല ഇന്ത്യൻ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി കൂടി ആയിരുന്നു അദ്ദേഹം അതേപോലെതന്നെ ഡീ ആർ ഡീ ഓ ഐ എസ് ആർ ഒ തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു അദ്ദേഹം ഒരു എയറോസ്പേയ്സ് സൈൻറ്റിസ്റ്റ് കൂടി സൈൻറ്റിസ്റ്റായിരുന്നു അദ്ദേഹതിൻ്റെ സംഭാവനകളൊക്കെ എടുത്തു പറയേണ്ട ഇതാണ് അദേഹത്തിനു പത്മഭൂഷണം പത്മവിഭൂഷണം ഭാരത രത്നം ഒക്കെ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊര പിന്നെ എടുത്ത് പറയേണ്ടതാണ് സീ വീ രാമൻ സീ വീ രാമനെന്ന ശ്രീനിവാസരാമാനുജൻ അദ്ദേഹം ഒരു ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു പ്രശസ്തനായൊരു ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു ഈ സീ വീ രാമൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി രണ്ട് ഇന്ത്യയിൽ ഗണിത ശാസ്ത്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത് പിന്നൊരാളാണ് വിക്രം സാരാഭായി വിക്രം സ് സരാഭായുടെ സംഭാവന അദ്ദേഹം നൽകിയ കെ ഇന്ത്യക്ക് നൽകിയ സംഭവനകൾ വളരെ വലുതായിരുന്നു ഇന്ത്യൻ ബഹിരാകാശപദ്ധതിയുടെ പിതാവായിട്ടാണ് വിക്രം സരാഭായെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിനും പത്മഭൂഷണം പത്മവിഭൂഷണവും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരാളാണ് ഹോമീ ജെഹാങ്കിർ ബാബാ അദ്ദേഹത്തെ ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത് ഇത് ഇങ്ങനെ കുറേ ഇതിലും ഇനിയും ഒരുപാടൊരുപാട് ശാസ്ത്രജ്ഞർ ഉണ്ട്